ഹലോ ചേച്ചി ഞാനാ മറ്റെ അപ്പുറത്തെ റോഡിലെ വൈഷ്ണവി ആ അവിടെ കയിഞ്ഞാഴ്ച്ച വന്നിട്ട് സാധനങ്ങളൊന്നുവില്ലായിരുന്നു അപ്പോ വന്നിട്ടുണ്ടോന്ന് ഹ അപ്പം അരി എനിക്ക് അരി സാധനങ്ങളും കുറച്ച് പച്ചക്കറികളും പച്ചക്കറികൾ പച്ചക്കറികളക്കെ വന്നിട്ടില്ലേ ആണൊ ഓക്കെ ഓക്കെ അപ്പോൾ ഒരു ഉള്ളി ഒരു അ അരക്കിലൊ പിന്നെ തക്കാളി ഒരു രണ്ട് കിലൊ പിന്നെ വെണ്ടയ്ക്ക ഒരു കാൽക്കിലൊ

അതെ അതെ അതെ അതെ സാമ്പാറിനുള്ള പച്ചക്കറി അ അയ്യോ അത് ചേച്ചിക്ക് ഇനി മറന്ന് പോയാൽ വിട്ട് പോയാലോന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞൂന്നേ ഉള്ളു അപ്പോൾ ആ അ അ അ അപ്പോൾ അത് അതത്രയെടുത്ത് വെച്ചേക്ക് പിന്നെ സാമ്പാർ പരിപ്പ് വേണം പിന്നെ അല്ലാതെ പീസൊണ്ടൊ കടല മറ്റേ പീസ്സ് ഗ്രീൻ പീസ്സ് ആണോ ഓക്കെ കുഴപ്പമില്ല നമുക്ക് അല്ലാതെ പിന്നെ ഒരു പത്ത് കിലോ അരി വേണം ആ ആ അ ആ ഇതൊക്കെ പിന്നെ വേറെന്തുവായിരുന്നു ആ വേറെ ഒരു ഒരു ബോട്ടില് ക്ലിനിക് പ്ലെസ്സിന്റെ ഷാമ്പു പിന്നെ പിന്നെ ഒരു ഒരു സോപ്പ് ഒരു സെറ്റ് സോപ്പ് സന്തൂറിന്റെ മതി അ ആ എന്നിട്ട് ആ വീട്ടിലെത്തിച്ചാൽ മതി ഓക്കെ ഓക്കെ ആ രാമു സുഖവായിട്ടിരിക്കുന്നോ ഓക്കെ ഓക്കെ പിന്നെ ആ ഓക്കെ ഓക്കെ എൻറ്റേൽ ഫോൺ പെ ഇപ്പം ഇല്ല ഞാൻ ഞാനില്ലെങ്കിൽ പറ്റ് ബുക്കിലെഴ്തിക്കൊ ചേച്ചി ഞാൻ തന്നേക്കാം ഹാ ആ പിന്നെ പിന്നെ വേറെ എന്തായിരുന്നു അ വേറെ ആ ഓക്കെ ആ ഓക്കെ ചേച്ചി വേറെ വേറെ പ്രത്യേകിച്ച് ഒന്നുവില്ല ഇനി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം പിന്നെ ആ പിന്നെ ഒരു എന്തായിരുന്നു ഒരു കിലൊ പഴം കൂടെ ആ രസ കദളി മതി ഓക്കെ